അതെ ഇത് കെ ജി എഫ് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഡെക്കറേഷനിൽ നിന്നാണ് ഇതാരാണ് സംസാരിക്കുന്നത്

ഓക്കെ ഓക്കെ എന്തിനായിരുന്നു വിളിച്ചത്

അപ്പം ആ കുട്ടിക്കെന്തെങ്കിലും പ്രത്യേക കാർട്ടൂണോ അങ്ങനെന്തെങ്കിലും നിങ്ങളുടെ തീമ് നിങ്ങള് കണ്ട് വെച്ചിട്ടുണ്ടോ ബെർത്ത്ടേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ആ ഓക്കെ മാം ഞങ്ങളത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് ചെയ്തിട്ടുണ്ട് കുറെ വർക്കിതിന് മുൻപെയും ചെയ്തിട്ടുണ്ട് അത്കൊണ്ട അത് കുഴപ്പമില്ല അപ്പോൾ കേക്കൊക്കെ ആ തീമില് തന്നെ വരണോ ആ എന്തെങ്കിലും ഡ്രസ്സ് കോഡോ മറ്റോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ അതുംകൂടെ ഞങ്ങൾക്ക്

ആ അപ്പം ബലൂൺസും ആ ടോം ആൻഡ് ജെറീൻ്റെ ആ ഒര് കളറ് ഡ്രെസ്സ് കോഡും വെച്ച് ഞങ്ങളത് സെറ്റ് ചെയ്യാം ആ ഞങ്ങള് അതിൻ്റെയൊരു ഞങ്ങള് മുൻപേ ചെയ്ത കുറച്ച് വർക്ക് ഉണ്ട് അതിൻ്റെയെല്ലാം ഫോട്ടോസ് ഞാനയച്ച് തരാം അപ്പം മാമിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കണ്ടതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ട് അത് വെച്ച് നോക്കാലോ

ആ എത്ര പേരുടെ പരിപാടിയാണ് മാം ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ എത്ര നേരമാണ് നിങ്ങളുദ്ദേശിക്കുന്നത് പരിപാടി തുടങ്ങുന്നത് തുടങ്ങി അവസാനിക്കുന്നത് വരെ ഒരു ടൈം പറയുവായിരുന്നെങ്കില് ആ മൂന്നും

ഓക്കെ അപ്പം ഏത് ഓടിറ്റോറിയത്തിലാണ് നിങ്ങള് ബുക്ക് ചെയ്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആ ഓക്കെ ഉം അപ്പം ഞങ്ങള് ഒരു എട്ട് മണിയാകുമ്പത്തേക്കും സെറ്റ് ചെയ്യാം ഡെക്കറേഷൻസ് ഉം അപ്പം നമുക്കിതിൻ്റെ പൈസ എത്ര ആകുമെന്നുള്ളത് എത്രയൊക്കെയെന്ന് ഡിസ്കസ് ചെയ്യാം ഇതിന് ഒരു ഇരുപതിനായിരം രൂപയാകും മാമ് ആയത് കൊണ്ട് ഇപ്പം ഡിസ്കൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു പത്തൊൻമ്പതിനായിരം രൂപയ്ക്ക് ചെയ്ത് തരാം ഞങ്ങൾക്കൊരു ത്രീ തൗസൻഡ് അഡ്വാൻസായിട്ട് വേണം

ആ ഓക്കെ മാം അത് എന്തായാലും ഞങ്ങള് നന്നായിട്ട് ചെയ്യും ഉറപ്പാണ് എന്നാൽ ആ എന്നാൽ ശരി ഞാൻ ഫോട്ടോസ് അയച്ച് തരാം ശരിയെന്നാൽ ഓക്കെ ആ